നമ്മുടെ ഈ പ്രദേശങ്ങളില് ഏറ്റവും കൂടുതല് കിട്ടാറുള്ള ഒരു മൂന്നുനാലു മീനുകളെന്ന് നോക്കുമ്പോൾ ചൂരയുണ്ട് മത്തി ഉണ്ട് അയല ഉണ്ട് നൊത്തോലി ഉണ്ട് ഇതിൽ നൊത്തോലിയും മത്തിയുമാണ് ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കാറുള്ളത് ഇവയും ഇവ രണ്ടും ചീപ്പ് റേറ്റ് ആയിട്ട് കിട്ടും അതായത് അമ്പത് രൂപയ്ക്ക് ഒരു രണ്ട് പിടി നെത്തോലിയും അല്ലെങ്കിൽ ഒരു പിടി നെത്തോലിയും ഒരു പിടി ചാളയും മിക്സ് ആയിട്ട് തരും നെത്തോലി എന്ന് പറയുമ്പോൾ ചെറിയ മീനും ചാള എന്ന് പറയുമ്പോൾ നല്ല വലിയ മീനുമാണ് അപ്പോള് പിന്നേ ചൂരയുടെ കാര്യം ചൂരയുടെ കാര്യം പറയുകയാണെങ്കിൽ ചൂര പലതരത്തിലുണ്ട് പല വിലകളിലുമുണ്ട് അപ്പോള് ഈ മീനിൻ്റെ വേട്ട കുറയാൻ നേരത്തായിരിക്കും മീൻ മീനിൻ്റെ കടൽക്ഷോഭമൊക്കെ വന്ന് മീനിനെ പിടികൂടാൻ ആൾക്കാര് കുറയുമ്പോഴായിരിക്കും മീനിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോള് അതിനനുസരിച്ച് വില കൂടുകയും ചെയ്യും